മലയാളം മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മലയാളമെന്ന് പറഞ്ഞാൽ ജനിച്ചത് തൊട്ടിട്ടേ കേൾക്കുന്ന ഒരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷയാണ് മലയാളം ഞാൻ പിന്നെ ചെറുത് തൊട്ടിട്ടേ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലാങ്ക്വേജ് ആണ് മറ്റുള്ള ലാങ്ക്വേജിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ട്ം മലയാളമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാളം പഠിക്കാനാണ് ഏറ്റവും വിഷമം കാരണം മലയാളത്തിൽ ഗ്രാമർ പഠിക്കാൻ ഒരുപാട് വിഷമം ഉണ്ട് അപ്പം നമ്മൾ ചെറുത് തൊട്ടേ കൈകാര്യം ചെയ്യുന്നതു കൊണ്ട് തന്ന മലയാളം ഇപ്പം നല്ല സിംപിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എഴുതാനായാലും വായിക്കാനായാലും സംസാരിക്കാനായാലും മലയാളമാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ളത് അപ്പം കേരളത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടുത്തോളം മലയാളം എല്ലാവർക്കും അത്യാവശ്യം നല്ല നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഞാൻ ചെറുത് തൊട്ടിട്ടേ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതു കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് വായന ശീലമുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കും ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതും മലയാളത്തിൽ അതുകൊണ്ട് തന്നെ മലയാളം ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ചെറുതിൽ പഠിക്കുന്ന സമയത്തു മലയാളം എഴുതാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഗ്രാമറിൻ്റെ ഭാഗം വരുമ്പോഴൊക്കെ കുറച്ചു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മലയാളത്തിനെ കൂടുതൽ നമ്മൾ മനസിലാക്കണമെങ്കിൽ ഒരുപാട് വായിക്കണം ഒരുപാട് കഥകൾ നോവലുകൾ അതുപോലെ തന്നെ ഒരുപാട് എന്താ പ്രസംഗങ്ങൾ കേൾക്കണം നല്ല നല്ല നല്ല ഭാഷ എന്താ നല്ല നല്ല വാക്കുകൾ കിട്ടും പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അപ്പോൾ എനിക്കത്യാവശ്യം ഈ വായനാ ശീലമൊക്കെ ഉള്ളതുകൊണ്ടും മലയാളം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല മലയാള ഭാഷയെന്ന് പറയുന്നത് എപ്പോഴും നല്ല മനോഹരമായിട്ടുള്ള ഭാഷയാണ് ഒരിക്കലും ഇതുവരെ എഴുതുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും മലയാളം പിന്നെ നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം ചെറുതിലെ നമ്മൾ കേട്ടുവളരുന്നത് ഈ മലയാള ഭാഷയാണെ മലയാളത്തിലെ ഗ്രാമർ പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചു ബുദ്ധിമുട്ടുണ്ടാകും ഈ സന്ധികളും സമാസമൊക്കെ വരുമ്പോൾ കുറച്ചു ബുദ്ധിമുട്ടുണ്ടാകും അല്ലാണ്ട് നോർമലായിട്ട് നമുക്ക് മലയാളം സംസാരിക്കാൻ മലയാളം എളുപ്പത്തില് പറ്റും അതുപോലെ തന്നെ വായിക്കാനും പറ്റും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും